രാഷ്ട്രീയത്തേയും ഭരണകൂടത്തേയൊക്കെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ വാർത്തയൊക്കെ കാണാറുണ്ട് പക്ഷേ എനിക്കിതിലൊന്നും വലിയ താല്പര്യമൊന്നുമുള്ള വ്യക്തിയല്ല ഈ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ഒക്കെ എനിക്കതിനോട് വലിയ താൽപ്പര്യമൊന്നുമില്ല പക്ഷേ ഇന്നത്തെ ഈ മാധ്യമ ലോകത്തെ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നു കൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയക്കാർ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് എന്തെല്ലാം മ്ലേച്ചമായ കാര്യങ്ങളിൽ കൂടെയാണ് കടന്ന് പോയി കൊണ്ടിരിക്കുന്നത് ഒത്തിരി പെരുപ്പിച്ചും പറയും ഇല്ലാത്തതും പറയും ഉള്ളതും പറയും അങ്ങനൊക്കെയാണ് മാധ്യമങ്ങളിൽ ഇത്തറ് വാർത്തകളൊക്കെ പരത്തുന്നത് രാഷ്ട്രീയത്തിൻ്റെ ഒത്തിരി നല്ലവശങ്ങളുമുണ്ട് ചീത്തവശങ്ങളുമൊക്കെയുണ്ട് അത് നന്നായിട്ട് രാഷ്ട്രീയം കൊണ്ടു പോകുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് പോകാനായിട്ട് സാധിക്കും പക്ഷേ അത് അതിൻറ്റെ പിന്നിലുള്ള കൂടുതലായിട്ടുള്ള ഗൂഢമായിട്ടുള്ള വിചാരങ്ങളൊക്കെ ഉള്ളവർക്കൊന്നും അതൊന്നും മുന്നോട്ട് കൊണ്ടോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നല്ലരീതീലൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നല്ലതൊക്കെത്തന്നെയാണ് പക്ഷേ എല്ലാത്തിനും ഉണ്ടല്ലോ അതിൻറ്റേതായ മോശവശങ്ങളും നല്ല വശങ്ങളുമൊക്കെ ആ വാർത്തയിലൊക്കെ ഒത്തിരി ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി കാര്യങ്ങൾ നടന്നോണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ഈ സമൂഹത്തിലും ലോകത്തിലുമെല്ലാം പക്ഷേ അതൊക്കെ വാർത്തയിലൊക്കെ വരുന്നത് പല രീതിയിലും പലരെ അവഹേളിച്ചും പലരേം മോശമായ രീതിയിൽ ചിത്രീകരിച്ചൊക്കെ തന്നെയാണ് പിന്നെ നല്ല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് മോശം കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് എല്ലാത്തിനും അതിൻറ്റേതായ നല്ല വശങ്ങളും ചീത്തവശങ്ങളുമൊക്കെയുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ അതിനോട് അത് നല്ല സാമൂഹ്യ നന്മയ്ക്കും സേവനത്തിനുമൊക്കെ വേണ്ടിയൊക്കെ കൂടിയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ വേറെ കാര്യങ്ങളൊക്കെ അവനോൻ്റെ സ്വന്തമായ നിലനിൽപ്പിനും ഉള്ള കാര്യങ്ങൾക്കൊക്ക വേണ്ടിയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനുള്ളവരെയൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നല്ല രീതീലൊക്കെയാണെങ്കിൽ കുഴപ്പം ഇല്ല ഒത്തിരി ആൾക്കാരുണ്ട് നല്ല മനുഷ്യരുണ്ട് നല്ല രീതീലെല്ലാം കൊണ്ടുപോകുന്ന എല്ലാ സാമൂഹ്യം എല്ലായിട്ടും നല്ല രീതീ മുന്നോട്ട് പോകുന്ന ആൾക്കാരൊക്കെയുണ്ട് പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും സ്വന്തം സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് പകുതിയിലധികവും പേരും പക്ഷേ നല്ല രീതീ പോകുന്നവരുമുണ്ട് നമ്മുക്ക് എല്ലാവരെയും അടച്ചാക്ഷേപിക്കാനോ കുറ്റം പറയാനോ ഒന്നും പറ്റത്തില്ലല്ലോ ആ അപ്പം വാർത്തകളിലൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതെല്ലാം ഒരു പക്ഷേ സത്യങ്ങളായിരിക്കാം അല്ലേ ചിലപ്പോൾ അസത്യങ്ങളുമായിരിക്കാം നമുക്കിപ്പോൾ എല്ലാത്തിനെയൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോ മാധ്യമ പ്രവർത്തകർ ഒരു വാർത്ത കിട്ടിയാൽ അതിങ്ങനെ വലിച്ച് നീട്ടി പെരുപ്പിക്കുന്ന ആൾക്കാരല്ലേ അപ്പം പിന്നെ നമുക്ക് എല്ലാം സത്യമാണോ എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എങ്കിലും ഇങ്ങനെ മനുഷ്യരെ എല്ലാം കണ്ടും കേട്ടുമൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ അതിനകത്തൊന്നും വലിയ കഴമ്പൊന്നും കാണത്തില്ലായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ കാണുമായിരിക്കും ചിലപ്പോൾ എന്നും പറഞ്ഞ് രാഷ്ട്രീയക്കാരെല്ലാം മോശക്കാരാവുന്നൂന്നൊന്നും നമുക്ക് അടിച്ചാക്ഷേപിക്കാനൊന്നും പറ്റത്തില്ല നല്ല മനുഷ്യരുമുണ്ട് മോശം ആൾക്കാരുമുണ്ട് നല്ല രീതി മുന്നോട്ട് പോകുന്നവരുമുണ്ട് സാമൂഹിക സേവകനും എല്ലാം എല്ലാ കാര്യങ്ങളിലും ലോകത്തിൻറ്റെ എല്ലാ കാര്യങ്ങളുമായിട്ടും നല്ല രീതീ മുന്നോട്ട് പോകുന്ന ആൾക്കാരുമുണ്ട് അല്ലാത്തവരും ഉണ്ട് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തൊള്ളു